ഞാൻ ഏ പ്പി എഫ് പോർട്ടലിൽ ലോഗിൻ ചെയ്യണം എനിക്ക് ചെയ്താലേ എനിയ്ക്ക് ആ പാൻ എന്റെ അക്കൗണ്ടിലുള്ള ഏ പ്പി എഫ് അക്കൗണ്ടിലുള്ള പൈസ എനിക്ക് പിൻവലിക്കാൻ പറ്റത്തുള്ളൂ പിൻവലിച്ചെങ്കിലേ എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാ അപ്പം അതിന് വീട് പുതുക്കി പണിയാൻ ആവശ്യമുള്ള പൈസ എനിക്കത് അവിടുന്ന് ലോഗിൻ ചെയ്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് കാരണം എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലെ എനിക്ക് ഗൂഗിൾ പ്പെ ആണെങ്കിലും അല്ലെങ്കിൽ ഏ റ്റി യെമ്മിൽനിന്ന് ഏ റ്റി യെമ്മിൽനിന്ന് എൻ്റെ അക്കൗണ്ടിൽനിന്ന് പൈസ എടുക്കാനും എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ യൂ യേ യെന്ന് അക്കൗണ്ടിലേ പറ്റത്തുള്ളൂ സൊ ഞാൻ എന്റെ ഈ പ്പി യെഫ് ലോഗിൻ ചെയ്ത് എന്റെ വീട്ട് പണിക്ക് വേണ്ടി അതിനാവശ്യവായ പൈസ അല്ലെങ്കിലതിൽ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ കുറച്ചിട്ടിട്ട് ബാക്കി എനിയ്ക്കാവശ്യമുള്ളത് എടുക്കും അല്ലെങ്കിൽ അതിൽ കിടക്കുന്ന മുഴുവൻ തുകയും വിഡ്രോ ചെയ്ത് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഞാൻ ആഗ്രഹിയ്ക്കുന്നു അല്ലെങ്കിൽ യൂ യേ യെൻ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഞാനാഗ്രഹിക്കുന്നു അത് ലോഗിൻ ചെയ്യുകയും അതിനകത്തുനിന്ന് അത് പിൻവലിക്കാനുള്ള ആ ഒരു ഹോം ആ ഒരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള പൈസ വിഡ്രോ ചെയ്തെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു